അഞ്ച് രണ്ട് രണ്ടായിരത്തി ആറ് ഏഴ് എട്ട് രണ്ടായിരത്തി മൂണ്ണ് ഒൻപത് എട്ട് രണ്ടായിരത്തി പത്ത് ഇരുപത്തൊൻപത് എട്ട് രണ്ടായിരത്തി ആറ് നാല് എട്ട് രണ്ടായിരത്തി ഒൻപത്